ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് എൻ്റെ ചുറ്റുപാടിൽ കൂടുതലായും എൻ്റെ അറിവിൽ എല്ലാവരും യൂസ് ഉപയോഗിക്കാറുള്ളത് വ്യായാമങ്ങളാണ് വ്യായാമമെന്നു പറയുമ്പോൾ പലതരത്തിലുമുള്ളതുണ്ട് യോഗയുണ്ട് അതുപോലെ മാർഷ്യല് ആര്ട്സിൻ്റെ തലത്തിലുള്ള വ്യായാമങ്ങളുണ്ട് ഇപ്പോള് കൂടുതലായി പ്രചാരത്തിലുള്ളത് ജിം പോലുള്ള മറ്റു ബോഡി ബിൽഡിംഗ് യൂസേജുകളാണ് ഇനി വൈദ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അറിവിലുള്ളത് യൂനാനി മരുന്നുകള് അല്ലെങ്കിൽ അറേബ്യൻ മരുന്നുകളുള്ള സുന്നാമോക്കി എന്നുള്ളൊരു ആയുർവേദമുണ്ട് ഒരു ഉണക്കിപ്പൊടിച്ചു പാലിൽ കൂട്ടിക്കഴിക്കേണ്ട ഒരു പ്രത്യേക തരം ഔഷധമാണ് അത് കഴിച്ചാൽ നമുക്ക് വയറു ശുദ്ധിയാകും നമ്മുടെ ശരീരത്തിലുള്ള വേണ്ടാത്തതായിട്ടുള്ള എല്ലാ രക്തങ്ങളും മറ്റെല്ലാം ഇല്ലാതായിപ്പോകും ദഹിച്ചു പോകുമെന്നുള്ളതൊക്കെയാണ് ഒരു കേട്ടറിവ് അതു വയറിനേറ്റവും നല്ലതാണ് എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു ആയുർവേദമാണ് നാരങ്ങ നാരങ്ങ കട്ടൻ ചായയിൽ പിഴിഞ്ഞു കുടിക്കുക അതല്ലെങ്കിൽ ഉപ്പിട്ടു കുടിക്കാം അതുപോലെ മറ്റു പലതരത്തിലും നാരങ്ങവെള്ളത്തെ നാരങ്ങയിലുള്ള ആസിഡ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ ഒരു ആവശ്യമില്ലാത്ത ഫേറ്റുകൾ കുറയ്ക്കാനുള്ളൊരു പ്രയോഗമാണ് പക്ഷെ ഞാൻ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നത് ആയുർവേദത്തിനേക്കാള് എന്താണ് എക്സൈസ് പോലത്തുള്ള വ്യായാമങ്ങളെയാണ് ദൈനംദിനമുള്ള വ്യായാമങ്ങൾ ഓട്ടം ഇതുപോലുള്ള പ്രക്രിയകളിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിനെ ബാലൻസ് ചെയ്യാനും കഴിയും അതുപോലെ നമ്മുടെ ഭക്ഷണരീതിയും ലിമിറ്റ് ചെയ്യാനും കഴിയും ഇപ്പോള് ഞാന് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് കുംഫു കുംഫു എന്ന മാർഷ്യൽ ആർട്സ് പഠിക്കുന്നതോടുകൂടെ അതിലുള്ള വ്യായാമങ്ങൾ എൻ്റെ ശരീരത്തിനു ഞാൻ ഇത്രയും കിലോയുള്ള ഒരാളാണ് ദൈനംദിനമായ പ്രക്രിയകളിലൂടെ അതിൻ്റെ ഓരോ ശരീരഭാഗങ്ങക്കൂള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു ടെക്നിക്കുകളിലൂടെ എന്തു ചെയ്യാം നമ്മുടെ ശരീരഭാഗത്ത് ഭാരം കുറയ്ക്കുക അമിതമായ ഭാരം കുറയ്ക്കുന്നതിലേറെ ആ ഉള്ള ഭാരത്തിനെ എങ്ങനെ ശാക്തീകരിക്കാം എങ്ങനെയതു നല്ലൊരു പോസിറ്റീവ് എനർജി ആക്കി മാറ്റാം എന്നുള്ളതാണിതിലൂടെ പഠിച്ചെടുക്കുന്നത് അതില് ഓരോ വ്യായാമത്തിനിടയിൽ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ശ്വസന രീതിയുണ്ട് ഒരു ബ്രീതിങ് സ്റ്റൈലുണ്ട് അതു ചെയ്യുമ്പോള് നമ്മുടെ ഹൃദയത്തിനും ഹൃദയം ഹൃദയത്തിനൊരു ശാന്തത കിട്ടും അതുപോലെ ഹൃദയം കാമാകുന്നതിലോടുകൂടെ ശാന്തമാകുന്നതോടുകൂടെ നമ്മുടെ എൻ്റെയർ ബോഡിയും അതെന്താകുന്നു ശാന്തമാകുന്നു അത് നമ്മുടെ ശരീരഭാഗങ്ങള് എല്ലായിടത്തേക്കും എത്തിക്കുന്നതാണ് പണ്ടൊക്കെ പറയുക എന്നുള്ള യോഗ അല്ലെങ്കിൽ പണ്ടുള്ള സന്യാസിമാരൊക്കെ ചെയ്യുന്ന സ്നാനങ്ങൾ അങ്ങനെ പലതും ചെയ്യുമ്പോള് അതു തന്നെയാണു ലഭിക്കുന്നത് കൂടി നമുക്ക് ഒരു നല്ല രീതിയില് ദിവസേനെ രീതിയില് നമ്മള് കൂട്ടിച്ചേർക്കുമ്പോൾ അതിനതിന്റേതായിട്ടുള്ള മാറ്റങ്ങളും നമ്മുടെ ശരീരത്തും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഒരു ആത്മാവിലും ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ എക്സസൈസ് കൊണ്ടുള്ള ഒന്നുകൂടിയുള്ളൊരു ഒരു ഉപകാരം